നമ്മുടെ ഒര് കാസർഗോഡ് ജില്ല എന്നുപറയുന്നത് ഒരുപാട് വിഭവങ്ങള് ഉണ്ടാക്കുന്ന ഒര് നാടാണ് അതുപോലെ തന്നെ എല്ലാ വിഭവങ്ങള് എന്നു പറയുമ്പോൾ എല്ലാ ദിക്കിലും ഉണ്ടാവുന്ന പോലെ ആ ഒര് വിഭവം അല്ല ഉണ്ടാക്കല് പ്രത്യേക ടേസ്റ്റ് ആയാലും അതിൻ്റെ കൂട്ടായാലും എല്ലാം പ്രത്യേക രീതിലാണ് കാസർഗോഡ് ജില്ലയില് വിഭവങ്ങളെല്ലാം ഉണ്ടാക്കാറുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട എന്നുപറയാനായിട്ട് കാസർഗോഡ് ജില്ലയില് അങ്ങനെ വിഭവങ്ങള് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഭയങ്കര ആയിട്ട് ഈ ചായയുടെ കൂടെയൊക്കെ ഉള്ള ഒര് വിഭവമാണ് ചറുമുറു എന്നുപറയുന്നത് കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഭയങ്കര പ്രാധാന്യയിട്ട് ഈ ഒര് ചറുമുറു കാണാറുള്ളത് ചറുമുറു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒര് പൊരിയുണ്ടല്ലോ പൊരിയും ഉള്ളിയും അതിൻ്റെ കൂടെ തക്കാളിയും ബാക്കി എന്തൊക്കെയോ മസാല ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ചറുമുറു മുട്ട ചറുമുറി പിന്നെ സിമ്പിൾ ചറുമുറിയും അങ്ങനെ ചറുമുറു എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടില് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് എന്ന് പറയാൻ പറ്റില്ല ഒരു സംഭവമാണ് ചറുമുറു എന്ന് പറയുന്നത് വേറെ ഏത് സ്ഥലത്തും അത്ര അവര്പ്രാധാന്യം ഉള്ളൊരു കാര്യമല്ല ഈ ഒര് ചറുമുറ് എന്നു പറയുന്നത് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയില് മറ്റുള്ള ഉള്ളത് പോലെ തന്നെ സാമ്പാറും രസവും പുളിശ്ശേരിയും അതുപോലെ തന്നെ എന്തെങ്കിലും വറവും കാര്യങ്ങളൊക്കെ കാസർഗോഡ് ജില്ലയില് ഭയ പ്രസിദ്ധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് സാമ്പാറും രസവും അങ്ങനെ എല്ലാ ഇടത്തും ഉണ്ടാക്കുന്നതാണെങ്കിലും കാസർഗോഡ് ജില്ലയില് എന്നുപറയുന്നത് എൻ്റെ ആ ഒരു കൂട്ടിലും ആ ഒരു സ്ഥലത്തെന്നു പറയുന്നതും അതിനൊക്കെ പ്രത്യേക ഒര് കൂട്ടും അതുപോലെ തന്നെ രുചിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ രസം ഉണ്ടാക്കുമ്പോൾ തന്നെ ബാക്കി എല്ലായിടത്തും ഉണ്ടാക്കുന്ന പോലെയല്ല രസം ഉണ്ടാക്കുന്നത് അതില് ഈ ഒരു വെല്ലം ഒക്കെ ചേർത്തിട്ട് ഭയങ്കര മധുരമുള്ള രീതിയിലൊക്കെ ഒരു സാമ്പാറും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളത് പോലെ തന്നെ ദോശയും സാമ്പാറും ഇഡ്ലിയും ചട്നിയും ചമ്മന്തിയും ഇങ്ങനെ അത് വേറിട്ട കുറെ വിഭവങ്ങൾ നമ്മുടെ ഒരു പ്രദേശത്തിലെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് ഓണത്തിനും വിഷുവിനുമൊക്കെ ഭയങ്കര വിഭവ സമർത്ഥം അല്ലെങ്കിലും നമ്മളെകൊണ്ട് പറ്റുന്നത് പോലെ ഒരുപാട് വിഭവങ്ങളും കാര്യങ്ങളൊന്നും ഒക്കെ ഈ ഒരു നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കാറുണ്ട് ചോറിൻ്റെ കൂടെ സാമ്പാറ് പുളിശ്ശേരി പുളി ഇഞ്ചി പിന്നെ പിന്നെന്താ അച്ചുകച്ചബറ് വറവ് ഉപ്പേരി അച്ചാറ് അങ്ങനെ ഒരുപാട് വിഭവങ്ങളും നമ്മുടെ ഒരു പ്രദേശത്ത് ഉണ്ടാക്കാറുണ്ട് ഇപ്പം പിന്നെ ചായക്കൊക്കെ കടി ആയിട്ട് ഒലുബജ പഴംപൊരി വട അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഈ ഒരു നമ്മടെ പ്രദേശത്ത് ഉണ്ടാക്കാറുള്ളൊരു കാര്യം തന്നെയാണ് അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുപറയുന്നതാണ് ഈ ഒര് ചറുമുറു എന്ന് പറയുന്നത് അത് എല്ലാ ഒരു സ്ഥലത്തും കിട്ടുന്ന ഒരു കാര്യമല്ല നമ്മുടെ നാട്ടില് എല്ലാ ഉത്സവങ്ങളിലാണെങ്കിലും എല്ലാ പരിപാടി പരിപാടികളിലാണെങ്കിലും മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം എന്നുപറയുന്നത് ഈ ഒരു ചറുമുറു ആണ് ഭയങ്കര ടേസ്റ്റ് ആണത് കഴിക്കാൻ ആയിട്ട് പിന്നെ എന്നു പറയുന്നത് മുട്ട കൊണ്ട് കുറെ വിഭവങ്ങള് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഉണ്ടാക്കാറുണ്ട് എൻ്റെ വീട്ടിലൊക്കെ മുട്ട കൊണ്ട് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഒരുപാട് ചായകടികളും വിഭവങ്ങൾ എന്നു പറയുമ്പം ഈ ഒരു പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സാമ്പാറും പുളിശ്ശേരിയും അച്ചാറും വറവും തോരനും കാളനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ അത് സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ളത് എന്നു പറഞ്ഞാൽ ഓണത്തിനും വിഷുവിനും ഒക്കെയാണ് വിഭവ സമർഥമായിട്ടുള്ള ഇത്തരം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത് പിന്നെന്ന് പറയുന്നത് നമ്മടെ പ്രദേശത്ത് എന്നുപറയുന്നത് ഈയൊരു ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്കൊക്കെ പ്രത്യേക രുചിയായിരിക്കും എല്ലാ സ്ഥലത്തും ഉണ്ടാക്കുന്നതാണെങ്കിലും കൂടിയും എല്ലാ സാധനങ്ങൾക്കും ഒരു പ്രത്യേക രുചിയും അതിൻ്റെ കൂട്ടുകളും അതിലിടുന്ന സാധനങ്ങളും ഒക്കെ ഒര് പ്രത്യേക രീതിയിൽ ഉള്ളതായായിരിക്കും എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ല കറികളും ബാക്കി വിഭവങ്ങളും ഒക്കെ ഉണ്ടാകാറ് അതിന് പ്രത്യേക പൊടികളാണെങ്കിലും അതില് കൂട്ടുന്ന പച്ചക്കറികളാണെങ്കിലും അതില് കൂട്ടുന്ന ബാക്കി വിഭവങ്ങളാണെങ്കിലും അതിൻ്റെ രഹസ്യ കൂട്ടാണെങ്കിലും പ്രത്യേക രീതിയിലാണ് അത് ഉണ്ടാക്കുക എന്നുപറയുന്നത് അപ്പോൾ കാസർഗോഡ് ജില്ലയില് അങ്ങനെ പാരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നുപറയുന്നത് എനിക്ക് ഈ ഒരു വിഷുവിനും ഓണത്തിനും ബാക്കി ഉത്സവങ്ങളിലും എന്തെങ്കിലും വിഷേശ ദിവസങ്ങളിലോ ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു സാമ്പാറും പുളിശ്ശേരിയും ഇതൊക്കെ തന്നെയാണ് വിഭവം എന്നുപറയുന്നത് പിന്നെ ഈ രാവിലെ ചായക്ക് കഴിക്കാനായിട്ടുള്ള ദോശ ദോശ പലതരത്തിലുള്ള ദോശ ഉണ്ട് മസാലദോശയും സാധാരണ ദോശയും അതുപോലെ തന്നെ വേറെ ഇഡ്ലിയും വെള്ള അപ്പവും ഇതൊക്കെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഈ ഒര് മുസ്ലിങ്ങള് അവര് ഒരുപാട് വിഭവങ്ങള് എന്തെങ്കിലും പരിപാടിക്ക് ആണെങ്കിലും അല്ലാതെ തന്നെ അവര് ഒരുപാട് വിഭവങ്ങള് ഇണ്ടാക്കുന്ന ഒരു ആൾക്കാരാണ് ഈയൊരു മുസ്ലിം ആൾക്കാരെന്നുപറയുന്നത് അവര് ഈയൊരു നെയ്യ് പത്തലും വെള്ളയപ്പവും കോഴിക്കറിയും ബീഫ് കറിയും അങ്ങനെ ഒട്ടനവധി ഈ കുറെ വിഭവങ്ങൾ അവര് പരിപാടിക്കാണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആണെങ്കിലും കല്യാണം ആണെങ്കിലും എന്ത് നിശ്ചയം ആണെങ്കിലും എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവര് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത് എല്ലാ ഇപ്പോൾ നമ്മുടെ ഈ ഒര് കാസർഗോഡ് തന്നെ ഈ മുസ്ലിങ്ങളും നമ്മള് ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ കല്യാണ സദ്യകൾക്കാണെങ്കിലും ഈയൊരു വിഭവം എന്നു പറയുന്നത് സാമ്പാർ പുളിശ്ശേരിയും അവിലും രസവും പുളി ഇഞ്ചിയും പിന്നെ അച്ചാറും പയറും പയറു വറവും കോവയ്ക്കയും കടലയും അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഉള്ള ഒരു വിഭവങ്ങൾ ആണ് പിന്നെ എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മള് ഈ നെയ്യ് പത്തലും വെള്ളയപ്പവും ഈ ഇഡ്ലിയും ഇതൊക്കെയാണ് നമ്മള് സാധാരണയായി ഉണ്ടാക്കാറുള്ളത് പിന്നെ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന എന്നു പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയില് അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാ ജില്ലയിലുള്ളത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്പോലെതന്നെ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെത്തന്നെയും ഒരുപാട് വിഭവങ്ങൾ ഉള്ള ആ ഒരു സ്ഥലം തന്നെയാണ് ഈയൊരു കാസർഗോഡ് നമ്മുടെ പ്രദേശം എന്നുപറയുന്നത് മുട്ട കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് കോഴിമുട്ട ആണെങ്കിലും കാടമുട്ട എന്ന് ഒക്കെ പറയും അത് കൊണ്ട് ഒരുപാട് വിഭവങ്ങളും ഓംലറ്റ് ആണെങ്കിലും അത് വറവ് ആണെങ്കിലും കറി ആണെങ്കിലും ആ അതിൻ്റെ റോസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് അത് പൊരിച്ച് കഴിക്കുന്നത് ആണെങ്കിലും ഒരുപാട് വിഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെതന്നെ ഈ ഒര് കാസർഗോഡ് നമ്മുടെ പ്രദേശത്ത് സാധാരണയായി റോഡ് സൈഡുകളിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ കൂടാരം പോലെയുള്ള കുറെ കടകളും കാര്യങ്ങളുമൊക്കെ കാണാം കാണാനായിട്ട് സാധിക്കാറുണ്ട് അവിടെ പാനിപൂരിയും മസാലാപൂരിയും മസാല പൂരിയും അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ കാണാനായിട്ട് സാധിക്കാറുണ്ട് പിന്നെ ഈ ഒര് ചറുമുറു എന്നു പറയുന്ന സംഭവം ഈ റോഡ് സൈഡ് കളിലൊക്കെ സാധാരണയായിട്ട് കാണാനായിട്ട് സാധിക്കാറുണ്ട് അവിടെ അവര് ഒരുപാട് വിഭവങ്ങൾ ഒരുപാട് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളില് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല ബാക്കി എല്ലാ പ്രദേശത്ത് ആണെങ്കിലും ഒരുപാട് വിഭവങ്ങൾ ഈ ഒരു റോഡ് സൈഡുകളിലും മറ്റും കാണാനായിട്ട് സാധിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഒരു ഒര് സംഭവം തന്നെയാണ് ചറുമുറു എന്നുപറയുന്നത് ഭയങ്കര രസമാണ് അത് കഴിക്കാൻ ആയിട്ട് പിന്നെ എന്ന് പറയുന്നത് ഈയൊരു വിഭവങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽപെടുന്ന ഈ ഒരു സാമ്പാറും അവിയലും രസവും പുളിയിഞ്ചിയും ഒക്കെ തന്നെയാണ് ഇതിനൊക്കെ ഒര് പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാ സ്ഥലത്തും ഉള്ളതാണെങ്കിൽ കൂടിയും ഇതിനൊക്കെ ഒര് പ്രത്യക തരം ടേസ്റ്റ് ഈ ഒരു നമ്മളുടെ പ്രദേശത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാമ്പാർ ഒക്കെ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതില് എല്ലാ പച്ചക്കറിയും ഉൾകൊള്ളിക്കുകയും അടയും അതുപോലെ തന്നെ അതിലെ ഈ ഒരു മല്ലിച്ചപ്പ് കരിയാബ് അതുപോലെതന്നെ അതിന് ഒര് മധുര രസം കിട്ടാൻ ആയിട്ട് വെല്ലം ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വെല്ലം ചേർത്ത് സാമ്പാറും രസവുമൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് അറിയില്ല ഇതൊക്കെത്തന്നെയാണ് ഈ ഒരു കാസർഗോഡിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വിഭവങ്ങൾ എന്നുപറയുന്നത്